ആ നമ്മുടെ ആരോഗ്യമേഖലയിൽ ഒരുപാട് അഴിമതികളോക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നോക്കാണെച്ചാൽ മാറിമാറിവരുന്ന ഗവൺമെന്റ് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് നല്ല രീതിയിൽ ഉണ്ട് നല്ലതായിട്ടുമു ണ്ട് മോശമായിട്ടുണ്ട് അപ്പോൾ നോക്കാണ്ച്ചാൽ ഫണ്ടിൻറെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമ്മളെ സർക്കാർ ഒരുപാട് ഫണ്ട് സാക്ഷനാക്കി കൊടുക്കുന്ന സമയത്ത് അത് നേരെ വിനിയോഗിക്കാണ്ടും മറ്റും ഫണ്ടിന്റെ പ്രോബ്ലെംസ് വരുന്നുണ്ട് അതുപോലെതന്നെ അവയവ മോഷണം ഇപ്പോൾ നമ്മൾ എന്തെങ്കി എന്താ പറയാ നമ്മള് എന്തെങ്കിലും ശാസ്ത്രക്രിയ ചെയ്തുകഴിഞ്ഞു എന്നു വെച്ചാ നമുക്ക് നമ്മുടെ അവിടെ അത്ബന്ധപ്പെ ബന്ധവുല്ലാത്ത അവയവങ്ങളും മറ്റും നമുക്ക് നഷ്ടപ്പെടുന്ന അങ്ങനെ അവയവ മോഷണം അങ്ങനെ ഉണ്ട് പിന്നെ കൂടുതല് പ്രൈ പൈസ പ്രൈവറ്റിൽ പോണച്ചാ കൂടുതൽ പൈസയും മറ്റുകാര്യങ്ങളും വാങ്ങുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ വല്ല ഇൻഷുറൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ആ ഒരു ഹോസ്പിറ്റലിൽ എന്താ പറയുക ഇൻഷുറൻസ് ക്ലൈമാവാണ്ടും മറ്റും പ്രശ്നങ്ങളും മറ്റും നേരിടുന്നുണ്ട് സാധാരണക്കാരനായ ഒരാൾക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഇൻഷുറൻസ് പ്രശ്നങ്ങളൊക്കെ വരാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് മാറി മാറിവരുന്ന കാര്യം പിന്നെ ഫണ്ടിൽ നിന്നുള്ള പ്രശ്നങ്ങളെ ഒരുപാട് പൈസ വാങ്ങുന്നുണ്ട്